പണ്ട് പണ്ട് കാലങ്ങളിലൊക്കെ നമുക്ക് കാണാം വീട്ടുമുറ്റത്തൊക്കെ ചാണകം കലക്കിയ വെള്ളം ഒഴിക്കുന്നത് അതുപോലെ ചാണകം കലക്കിയ വെള്ളൊഴിച്ചിട്ട് മെഴുകുന്നതൊക്കെ അത് എന്തിനാണെന്ന് ചോദിച്ചാല് പണ്ട് കാലത്തുള്ളവർ പറയുന്നത് ദുഷ്ട ശക്തികളുടെ സാമീപ്യം ഇല്ലാതിരിക്കാനാണെന്ന് അന്ന് കാലങ്ങളിൽ ഇപ്പോൾ ഈ പിന്നെ ചെകുത്താൻറെയൊ അതുപോലെ പ്രേതം എന്നുള്ളൊരു ചിന്തകൾ ഒക്കെ ഉണ്ടല്ലോ അതിൻറെയൊന്നും അതൊന്നും വീട്ടിന് വീട്ടിലേക്കടുപ്പിക്കാൻ വേണ്ടി അല്ല അടുപ്പാ അടുപ്പിക്കാതിരിക്കാൻ വേണ്ടീട്ടാണ് ഇത് ചെയ്യുന്നതെന്നാണ് എന്നാൽ ചിലരുടെയൊക്കെ ഇത് എന്ന് വച്ചാല് നമ്മുടെ വീടും പരിസരവും ഒക്കെ ചാണകവെള്ളം ഒഴിച്ചാല് നല്ല വൃത്തിയായിരികുവല്ലോ കാണുമ്പോൾ ഒരു നല്ല ഒരു പൊടിയും അതൊന്നും പാറില്ലല്ലോ പൊടിപാറില്ല അതുപോലെ നല്ല വൃത്തിയില് പണ്ടു കാലങ്ങളിൽ ഈ ടൈലും അതു ഇതൊന്നും ഇല്ലാലോ അപ്പോൾ ചാണക വെള്ളം കലക്കി ഒഴിച്ചാല് പിന്നെ പൊടി പാറാതെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയി വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്